ഓക്കെ അപ്പം ഹോട്ടലിൻ്റെ കാര്യത്തിലാണ് ഇപ്പം രണ്ടാമത് ചോദിച്ചിരിക്കുന്ന കോസ്ററ്യൻ എന്നുപറയുമ്പോള് ഹോട്ടലിൻ്റെ കാര്യത്തില് ഇപ്പം പണ്ടൊക്കെയെന്ന് പറയുമ്പോള് നമുക്കിപ്പം നേരെ ഹോട്ടലിൽ പോവുക ഒരു റൂമെന്ന് പറഞ്ഞ് റൂം ബുക്ക് ചെയ്യാന് പറ്റള്ളൂ ഇപ്പോള് ഹോസ്പിറ്റാലിറ്റി സർവീസുകളാണെങ്കിലും പല രീതിയിലുള്ള സർവീസുകളാണെങ്കിലും ഇപ്പോള് നമുക്ക് നേരിട്ട് കണ്ട് ബൈ ഐ ടു ഐ കോൺടാക്റ്റ് നമുക്ക് മാത്രമേ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ മീൻസ് ആൾക്ക് ഫേസ് ടു ഫേസ് ഉണ്ടാകുന്നൊരു കോൺവർസേഷൻ വഴി മാത്രമേ നമുക്കത് സംഭവിക്കുകയുള്ളുവായിരുന്നു പക്ഷേയെന്ന് പറയുമ്പോള് ഈ ഫോണിൻ്റെ ഫോണിനുമുപരി എന്താണ് ഒരു ഒരു സാങ്കേതികമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് അതും കൊണ്ട് എന്താണ് അത് വളരെയധികം എന്താണ് പറയുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു അതിനെ നല്ല രീതിയില് അത് സപ്പോർട്ട് ചെയ്തു മീൻസ് ഇപ്പം ഇപ്പോള് ഫോണില്ക്കൂടെ ഉണ്ടാകുന്ന നമുക്കിപ്പോള് ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കില് നമുക്കിപ്പം ഒരു റൂം ബുക്ക് ചെയ്യണമെങ്കില് ഇപ്പം ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ്സുകള് ഗോബിബോ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങള് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോള് റൂം പോലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോള് ഏതൊരു നാട്ടിലിരുന്നാലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അവർക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൺവീനിയൻസ് ആണ് നമുക്ക് ആ ഒരു നമ്മുടെ കാര്യങ്ങളെ കുറെക്കൂടെ എളുപ്പമാക്കുകയാണ് ഈ ഇതും കൊണ്ട് ഇതിൻ്റെ കണ്ടുപിടിത്തോടുകൂടി ഈ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി സർവീസുകള് ഇങ്ങനെയൊരു കണ്ടുപിടുത്തമൊക്കെ ഈ ഒരു ഇതില്ക്കൂടെ നമുക്കതിനെ ഭയങ്കരമൊരു നമുക്ക് കൺവീനിയൻറ്റാക്കുകയാണ് നമ്മുടെ കൈക്കുള്ളിലാക്കുകയാണ് അതിനെ അത് സത്യം പറഞ്ഞാല് അത് നല്ലൊരു കാര്യമാണ് പിന്നെ അതിനുണ്ടാകുന്ന ഒരു ഡിസ്അഡ്വാൻറ്റെജ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഹോട്ടൽ ചില ഇപ്പോള് എല്ലാവരും ഇതിനെ ആ ആ ഒരു യൂസില് തന്നെ കണ്ട് അതേപോലെ തന്നെ ഉപയോഗിച്ചാലെ അതിന് ഉപകാരമുള്ളൂ അല്ലെങ്കില് ഇപ്പം ഒരു ചിലര് ഒരു കൂട്ടം ആൾക്കാര് അതിനെ ചിലപ്പം മിസ്യൂസ് ചെയ്ത് അവരിപ്പം ഇപ്പം ഇപ്പം പൈസ അയച്ച് ബുക്കിങ് ചെയ്യുന്നവർക്ക് തിരിച്ച് പൈസ കൊടുക്കാതെയാകും അതിനൊന്നും നമുക്കൊന്നും ചെയ്യാന് പറ്റില്ല അതിന് തെളിവുകളുണ്ടെന്ന് പറഞ്ഞാല് കസ്റ്റമർ കോർട്ടില് കേസൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോളൊരു ദൂരെ നില്ക്കുന്ന ഒരാൾക്ക് ഇപ്പം വിശ്വസിച്ച് ഒരു വിശ്വസ്തത എന്നുപറയുന്നത് ഒരു നൂറു ശതമാനത്തിലൊരു തൊണ്ണൂറ് ശതമാനം വിശ്വസ്തതയെ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോള് ഒരു എന്ത് വലിയൊരു പേരെടുത്ത സ്ഥാപനമാണെങ്കില് ഉപരി ചെറിയയൊരു സ്ഥാപനത്തിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് അപ്പം അതേപോലെത്തന്നെയാണ് ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോളീ സർവീസുകളുടെ കാര്യത്തിലും ഇപ്പം ഇപ്പം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം ഈ ഹൗസ് ബോട്ട് സർവീസ് ഈ റൂം സർവീസ് റൂം റെന്റ് ഈ കാര്യങ്ങള് പൈസയുടെ കാര്യങ്ങള് അത് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങള് അത് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങള് അത് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങള് ഒരു ഹോട്ടലില് ഇരുന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോള് ചെന്നുകഴിഞ്ഞ് കൊണ്ട് തന്നെ തന്നെ അതിനെ ഭയങ്കരം ഇപ്പം ഇപ്പോള് എന്താണ് ഈ ഫോണില്ക്കൂടെ തന്നെ നമുക്ക് താഴെ അപ്പോള് നമ്മളിപ്പോഴും ഹോട്ടലില് ചെന്ന് റൂമെടുത്തു ചെല ഹോട്ടലില് നല്ല ഗ്രാൻഡ് ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഫോണിൽ തന്നെ നമുക്കൊരു എന്താണ് അവരുടേതായ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകഴിഞ്ഞാല് അവരെ നമുക്ക് താഴെ നിന്ന് ഇപ്പോള് സ്റ്റാഫ്സിനെ വിളിച്ച് നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ നമുക്ക് അവർക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ കാര്യങ്ങള് അത്രയ്ക്കും എത്തി അതുകൊണ്ട് ഉപകാരമേയുണ്ടായിട്ടുള്ളൂ പക്ഷേ അതിൻ്റെയകത്തൊരു ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ഞാന് മുമ്പേ പറഞ്ഞതുതന്നെയാണ് ഇപ്പം ഫുഡിൻ്റെ കേസിലാണെങ്കിലും ഇതേപോലെ ഗൂഗിൾ പേയുടെ ഒരു കണ്ടുപിടുത്തം കൊണ്ട് തന്നെ ഇപ്പോള് കയ്യില് പൈസയില്ലാത്തവർക്ക് ബാങ്കില് പൈസയുള്ളവർക്ക് അത് പൈസ കയ്യിൽ കൊണ്ടുനടക്കുന്നതും അത് സൂക്ഷിക്കുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോള് ഈ കാലത്ത് കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അത് ഭയങ്കരമായിട്ട് ഭയങ്കരം ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഈ എന്താണ് ഈ ഇപ്പം നമ്മളിപ്പം കയ്യില് കൊണ്ടുനടക്കുമ്പോള് നമ്മളതിനെ നോക്കണം പൈസ ഉണ്ടോയെന്ന് നോക്കണം അതേപോലെ അത് വെയ്ക്കാനൊരു സംഭവം നമ്മള് കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ കുറെ പ്രശ്നമുണ്ട് ഇതെന്ന് പറയുമ്പോള് അങ്ങനെയല്ല ഇപ്പം കൈയിലിപ്പം നമ്മുടെ പൈസ തീർന്നാല് തന്നെ നമുക്കത് ഗൂഗിൾ പേ വഴി ഹോട്ടലില് ഇപ്പോള് നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെയെന്ന് പറയുമ്പോള് ആ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഈ ഹോട്ടലിൻ്റെ ഇപ്പം അവർക്കും അവർക്കും അതുകൊണ്ട് അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ് എന്ന രീതിക്ക് അവർക്ക് അവരുടെ പ്രസ്ഥാനത്തെ ഉയർത്താനും പറ്റും പറയുമ്പോള് അതിനൊരു ഒരു നമുക്ക് കൺവീനിയൻറ്റിനുപരി അവർക്ക് അവരുടെ ഒരു വ്യവസായത്തെ തന്നെ വലുതാക്കി അവർക്ക് ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റും അതിന് വളരെയധികം നല്ല രീതിയില് അത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോള് ഇപ്പം ഇപ്പോള് ഒരു നമ്മളിപ്പം ഒരു ഹോട്ടലിനെപ്പറ്റി ഒരു നമ്മള് ഇപ്പോള് പണ്ടൊക്കെയെന്ന് പറയുമ്പോള് നമ്മള് ഇപ്പം നമ്മളിപ്പോള് ഒരാളോട് പറയുകയാണ് അതേ ആ സ്ഥലം നല്ലതാണ് അത് നല്ലതാണ് ആ വഴിയായിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴെന്ന് പറയുമ്പോള് നമ്മള് റിവ്യൂസ് നോക്കി അതിൻ്റെ റേറ്റിങ്ങ് നോക്കി ഇപ്പം ഇപ്പ ഇവർക്ക് തന്നെ ആ റേറ്റിംഗ് കൂട്ടാനും ഇപ്പം റേറ്റിംഗ് കൂടുന്നതിലൂടെ ഇവർക്കത്രയ്ക്കും എന്താണ് പറയുന്നത് മാർക്കറ്റിങ് അവിടെ സംഭവിക്കുന്നത് ഒരു നല്ലൊരു ബിസിനസ്സ് തന്നെ അവർക്ക് ഗ്രോ ആകുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ആയൊരു സംഭവം കൊണ്ടുതന്നെ പിന്നെ വേറെയെന്ന് അതേപോലെത്തന്നെയാണ് ഇതിൻ്റെ കാര്യവും ഈ അവരുടെ ബ്രാൻഡിനെ തന്നെ വളർത്താനും പിന്നെ അവർക്ക് ബിസിനസ്സ് വർദ്ധിപ്പിക്കാൻ ഈ വ്യവസായം ബിസിനസ്സ് അവരുടെ തന്നെ അവർക്കും നമക്കും അത് നല്ല രീതിയിൽ ഉപകാരം വന്നിട്ടുണ്ട് അവരുടെ അവര്ക്കെടുത്ത് കാണിക്കാൻ ഒരു പൈസ കൊടുത്തൊരു അഡ്വെർടൈസ്മെൻറ്റിനുപരി അവർക്ക് ഫ്രീയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റാണിത് അതിപ്പം ഇപ്പോള് ഇനിയുള്ള കാലങ്ങളില് അത് ഭയങ്കരമായിട്ട് വളർന്നുവരുന്നുണ്ട് ഭയങ്കരം രീതിയില് ഭയങ്കരമായിട്ട് വളരും കാരണം ഇപ്പം നമ്മുടെ കസിന് ഇതേപോലെ ഒരു ഹോട്ടലുണ്ട് അപ്പോള് പുള്ളിയും ഇപ്പോള് അവരവരുടെ കാര്യങ്ങള് അതേപോലെത്തന്നെ ഹോട്ടല് വഴിയാണ് ഇങ്ങനെ മീൻസ് ഇങ്ങനെയുള്ള വഴി ഇങ്ങനെയുള്ള സംഭവം വഴിയാണ് അവര് കൊടുക്കുന്നത്